നമ്മുടെ നാട്ടിൽ തുറസ്സായ സ്ഥലത്തെ മല മൂത്ര വിസർജ്ജനം നേരത്തെയൊക്കെ സാധാരണമായിരുന്നു നേരത്തെയൊക്കെ സാധാരണമെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് എവിടെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നോ അവിടെ മൂത്രം ഒഴിക്കും ഇപ്പോഴും പലയിടത്തും ഈ മലമൂത്ര വിസര്ജ്ജനം സാധാരണ പൊതുവായിട്ട് വഴികളിൽ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് ആളുകളും ഉണ്ട് എന്നാൽ ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല ഇതു കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ദൂഷ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഇവ പലപ്പോഴും ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല അസഹ്യമായ ദുർഗന്ധം ഈ മല മൂത്രം ഈ മൂത്രം ഒഴിക്കുന്നിടത്ത് വിവിധങ്ങളായ രോഗങ്ങൾ പകർച്ച വ്യാധികൾ വിധങ്ങളായി രോഗങ്ങളുണ്ടാകും വയറിളക്കം വയറുകടി കോളറ എന്നു വേണ്ട വിവിധങ്ങളായ രോഗങ്ങളുണ്ടാകും മാത്രമല്ല അങ്ങനെയുള്ള പ്രദേശത്തു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിയിൽ കൂടി

നമ്മുടെ മലയാളികളുടെയിടയിൽ പോലും ഇപ്പോഴും സർവ്വ സാധാരണമായി കാണാറുണ്ട് ഇപ്പോഴും വഴിയിൽ കൂടി മൂത്രമൊഴിക്കുന്ന രീതി ഒരുപാടൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ടൗണുകളിൽ കൂടി ആണെങ്കിലും നഗരങ്ങളിൽ കൂടി ആണെങ്കിലും ഗ്രാമങ്ങളിൽ കൂടി ആണെങ്കിലും മൂത്രമൊഴിക്കാൻ മുട്ടി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒതുക്കമുള്ള സ്ഥലത്തു നിന്നു തട്ടുന്നു എന്നാൽ ഇതു ഭയങ്കരമായ പകർച്ച വ്യാധികൾക്കും രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ വഴി വെക്കുന്നു മറ്റുള്ളവർക്ക് ദൂഷ്യമാണെന്നോ എന്നുള്ള ചിന്താഗതി ഇല്ലാതെ ചെയ്യുന്നവരുണ്ട് പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്

ഒതുക്കം ഉള്ളിടത്ത് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ പോലും കക്കൂസുകളില്ലായിരുന്നു തുറസ്സായ സ്ഥലത്തായിരുന്നു മലമൂത്ര വിസർജ്ജനം ചെയ്തു കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ സർക്കാരിൻ്റെ വിവിധങ്ങളായ സംവിധാനത്തിൽ കക്കൂസുകൾ നിർമ്മിക്കുകയും പൊതുവായി സ്ഥലത്ത് വീടുകളിൽ മലമൂത്ര വിസർജ്ജനം ഇപ്പോഴൊരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ പൊതുവായ സ്ഥലത്തുള്ള ഈ മലമൂത്ര വിസർജ്ജനം നമ്മുടെ ജല ശ്രോതസ്സുകളെ മലിനമാക്കും ഇതൊഴുകി എന്ന ജലശ്രോതസ്സുകളിൽ നമ്മുടെ കുടിവെള്ള കിണറുകളിൽക്കൂടി എല്ലാം ചെന്ന് വീഴുകയും അതു നമ്മൾ മൃഗങ്ങൾ ഇതെല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും വെള്ളം കുടിക്കുമ്പോൾ ഇതിൻ്റെ അണുക്കൾ നമ്മളുടെ ഉള്ളിൽ വരുന്നു അങ്ങനെയാണ് വിവിധങ്ങളായ രോഗങ്ങൾ നമുക്ക് പിടി പെടുന്നത് അതു നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഈ കാര്യങ്ങളിലൂടെ പിന്നീട് സംഭവിക്കുന്ന ദുരിതങ്ങൾ അതെത്ര വലുതാണെന്ന് ആരും ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇപ്പോഴൊക്കെ പൊതുയിടങ്ങളിൽ അല്ലെങ്കിൽ തുറസ്സായ സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് നിയമം വന്നിട്ടുണ്ട് കർശനമായ നിയമം ഉണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലുമിപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ പല ഇടങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തുറസ്സായ സ്ഥലത്ത് മൂത്രം ഒഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ ഈ സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോഴുള്ള അസഹനീയമായ മണമാണ് നമുക്ക് ഏറ്റവും പ്രശ്നം ഈച്ച ആർത്ത് ഈ ഈച്ചകൾ അടുത്തുള്ള ഭക്ഷണ സാധനത്തിൽ പോയിരുന്ന് അതു നമ്മൾ വാങ്ങി കഴിക്കുന്നു അങ്ങനെ നിരവധിയായ ദോഷങ്ങൾ ഈ തുറസ്സായ സ്ഥലത്തുള്ള മലമൂത്ര വിസർജ്ജനത്തിൽ അത് സംഭവിക്കാറുണ്ട് വിവിധങ്ങളായ ദോഷങ്ങൾ